ഹലോ കെ എസ് ഇ ബി അല്ലേ ഞാൻ ചെങ്ങത്തോരെ നിന്നായിരുന്നു വിളിക്കുന്നത് ഞാൻ വീട്ടൽ ഇടക്കിടക്ക് പവർ കട്ട് പ്രോബ്ലം ഉണ്ട് എന്തേലുമൊക്കെ പ്രോബ്ലം കൊണ്ട് കറണ്ട് കിട്ടാതെ വരുന്ന കാര്യങ്ങളുണ്ട് അപ്പം കറണ്ട് വീട്ടിൽ ഏറ്റോം അത്യാവശ്യമായിരുന്നു കുട്ടികളും കാര്യം അങ്ങനെ ഒള്ള മുതിർന്നവരുവൊക്കെ ഉള്ളത് കൊണ്ട് കറണ്ട് അത്യാവശ്യമായിരുന്നു അപ്പോൾ ഞാനൊരു ഇൻവേട്ടറെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഈ ഇൻവേട്ടറെടുക്കുന്നതിൻ്റെ പ്രൊസീജിയറെങ്ങനെയാന്ന് എന്നുള്ള ഒന്ന് പറയാമോ അതായത് വൈദ്യുതി കൂടുവോ ഒത്തിരി ഓവർ ആയി പോകുവോ ഓവറായി പോവാതിരിക്കാൻ എങ്ങനെ എന്ത് ചെയ്യണം വൈദ്യുതി കൺട്രോൾ ചെയ്ത് ഇൻവെട്ടറ് യൂസ് ചെയ്യുമ്പം അങ്ങനെ എന്തേലുവൊക്കെ തടസ്സങ്ങൾ നേരിടുമോ ആ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഉള്ളതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അതിനെപ്പറ്റി ഒന്ന് ഡീറ്റേലായിട്ടൊന്ന് പറയാൻ ഒക്കുമോ അതായത് ഈ ഇൻവേട്ടറ് വെക്കുമ്പോൾ ഉള്ള അഡീഷണൽ ചാർജ് അഡീഷണൽ യൂണിറ്റ് പവറ് അതൊക്കെ നിയന്ത്രിക്കാനും അതിനുള്ള രീതീലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശരിക്ക് ആയി ആയിക്കിട്ടാൻ തട എന്തേലും അതും പുതിയത് കൊണ്ട് വെച്ചാൽ എന്തേലും തടസ്സം വരുമോ എന്തേലും കേടുപാടുകൾ പറ്റുമോ അത് നല്ലതാണോ അങ്ങനെയുള്ള എന്താ ആണ് ചെയ്യേണ്ടതെന്നൊന്ന് ശരിക്ക് പറഞ്ഞ് തരാമോ